ഹലോ പറഞ്ഞോളൂ ഇപ്പോൾ എവിടെ ഉള്ളത് ഇപ്പം റൂമിലാണോ ഇപ്പോൾ ക്വാറൻറ്റീനിൽ അല്ലേ കഴിയുന്നത് അടുത്ത വീട്ടില് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ എവിടെ എങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നോ അവിടെ നിന്നാണോ പറഞ്ഞത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അ ഓക്കെ ഓക്കെ ഇപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് പനിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ ഇപ്പോൾ പനിക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാല് പാരസെറ്റമോളാണ് കൊടുക്കുന്നത് പിന്നെ തിളപ്പിച്ചാറിയ വെള്ളങ്ങളൊക്കെ കുടിക്കുക പിന്നെ ഇഞ്ചി എന്താ പറയുക ഇഞ്ചി അതിനകത്തിട്ടിട്ട് ഇഞ്ചി നമ്മള് കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിരോധശക്തി കൂടുകയാണ് ചെയ്യുക പിന്നെ ഒരു റൂമില് ഒറ്റയ്ക്കേ ഇരിക്കാൻ പാടുള്ളു പിന്നെ വേറെ ആരുമായിട്ടുള്ള ബന്ധങ്ങളോ എന്താ പറയുക കുട്ടികളാണെങ്കിലും അവരുമായിട്ടൊന്നും അടുപ്പിക്കരുത് പിന്നെ ഭക്ഷണം നമ്മള് സെപ്പറേറ്റായിട്ട് നമ്മള് സ്വന്തം എടുത്ത് കഴിക്കുകയാണ് വേണ്ടത് അവരോട് റൂമിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മള് തന്നെ സ്വന്തം എടുത്ത് കഴിക്കണം അവരായിട്ട് ഒരു കോൺടാക്ടും പാടില്ല ഇപ്പം റൂമിൻ്റെ അകത്താണെങ്കിലും മാസ്ക് യൂസ് ചെയ്യണം സാനിറ്റൈസർ എപ്പഴും കൈകൊണ്ട് എപ്പഴും ആക്കികൊണ്ടിരിക്കണം ഇതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ

വാക്സിനേഷൻ എടുത്തതാണോ സെക്കൻറ്റ് ഡോസ് എടുത്തിട്ടില്ല അല്ലെ അപ്പോൾ അത് ഇനി ഇപ്പം എടുക്കാൻ പറ്റില്ല കൊറോണ ഒക്കെ പോയതിന് ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അ അവിടെ പോയി എടുക്കാം ആശ വർക്കറെ ഒക്കെ വിളിച്ച് പറഞ്ഞതാണോ ഓക്കെ ഓക്കെ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ തലവേദന മാത്രമല്ലേ ഉള്ളൂ ഓക്കെ ഓക്കെ ഇപ്പോൾ എന്തായാലും മരുന്ന് മറ്റേ പാരസെറ്റമോൾ മാത്രം കുടിച്ചാൽ മതി പിന്നെ ഞാൻ പറഞ്ഞത് പോലെ വെള്ളം നല്ലോണം കുടിക്കണം കേട്ടോ ഭക്ഷണം നല്ലോണം കഴിക്കണം പിന്നെവേറെ ആരുമായിട്ടും ഇടപഴകാൻ പാടില്ല മാസ്ക് എപ്പഴും യൂസ് ചെയ്യുക സാനിറ്റൈസർ യൂസ് ചെയ്യുക ഇടക്കിടക്ക് കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഓക്കെ ശരി